മത്സ്യ ബന്ധനത്തിനെ കുറിച്ച് അതായത് നമ്മൾ പൊളിക്കാൻ ആഗ്രഹിക്കുന്ന പൊതുവായ ചില മിഥ്യാധാരണകളും തെറ്റിദ്ധാരണകളും എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഗതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക അതായത് അവർക്ക് വലിയ പണി ഒന്നും ഇല്ല പക്ഷെ മീനിനൊക്കെ ഭയങ്കര പൈസ ആണല്ലോ നൂറ്റി ഇരുപത് രൂപ ഇപ്പോൾ മത്തിക്ക് ഒരു കിലോക്ക് നൂറ്റി ഇരുപത് ഭയങ്കര പൈസ ആകുമോ മറ്റേതൊന്നും മേടിക്കാൻ പറ്റില്ല അവർക്ക് ഭയങ്കര ലാഭ കാര്യങ്ങളാണെന്ന് ഒക്കെ നമ്മൾ ചിന്തിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ അപ്പം അവർ മത്സ്യ തൊഴിലാളികൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം വരെ പണയം വെച്ചിട്ടായിരിക്കും അവർ കടലിലൊക്കെ പോയിട്ട് അതായത് പിന്നെ അവരുടെ കുട്ടികൾക്കും ഭാര്യക്കും ഒക്കെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആയിരിക്കും ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് കടലിലൊക്കെ ജീവൻ പണയം വെച്ച് അതായത് ഇവരുടെ ജീവനൊന്നും വലിയ ഉറപ്പൊന്നും ഇല്ല അവരിപ്പം പോയിട്ടുണ്ടെങ്കിൽ വരണേ അതായത് പോയാൽ വന്നാൽ വന്നു ഇല്ലെങ്കിൽ ഇല്ല വലിയൊരു കാറ്റ് മഴ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവർക്ക് അതായത് അവരുടെ ജീവൻ വരെ നഷ്ടമായേക്കാം അപ്പം അവർ അത്രയും ജീവൻ പണയം വെച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള അതായത് നമ്മൾ കഴിക്കാനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ അതായത് എത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പാടില്ല അതായത് അതായത് ഇവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഒക്കെ ഉള്ള തെറ്റിദ്ധാരണകൾ നമ്മൾ ആദ്യം മാറ്റുക